ഹലോ ഇത് റാറാസ് ഹോട്ടലല്ലേ ഞാൻ ഫുഡ് ഓഡർ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചതാണെ ഇത് സ്ഥലം വരുന്നത് ഇരിട്ടിന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് നിങ്ങളുടെ ഹോട്ടലിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ഉള്ളിലോട്ട് ആയിട്ടാണ് വരുക അത് ഇവിടെ ഇപ്പം പക്ഷേ ഭയങ്കര കാറ്റും മഴയാണ് ഉള്ളത് അതുകൊണ്ട് ഇങ്ങക്ക് ഫുഡ് ഓഡർ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവോ ഡെലിവറി ചെയ്യാൻ പറ്റില്ലേ ഇങ്ങക്ക് ഓർഡർ ചെയ്തുകഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് രാത്രി ഒരു ഒൻപത് മണിക്ക് ശേഷമാണ് ഫുഡ് വേണ്ടത് ഒരു പൊറോട്ടയും ചില്ലി ചിക്കനും ഫെയ്ഡ് റൈസും അതിൽ ചില്ലി ചിക്കൻ ഹാഫ് ആണ് വേണ്ടത് ആ ഓക്കേ ഇത് സ്ഥലം കറക്റ്റ് ഇരിട്ടി പയഞ്ചേരി വായനശാലന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലം നിങ്ങൾ അവിടെ എത്തിയിട്ട് വായനശാല ന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ഞാൻ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാം അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ മഴയായതുകൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ ഒക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് നൈറ്റ് ഒൻപത് മണിക്ക് ഫുഡ് ഡെലിവറി ചെയ്താൽ മതി നിങ്ങൾ ഇവിടെ എത്തി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കേ